ഒരു ഹോട്ടല് തുടങ്ങണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അത് വീട്ടിൽ അവതരിപ്പിച്ചു മകനോടും അച്ഛനോടും അവതരിപ്പിച്ചു അപ്പോൾ എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കുക എന്ന് തീരുമാനമെടുത്തു പിന്നെ സാമ്പാർ

സാമ്പാർ പിന്നെ പഴുകൂട്ടാൻ അത് പിന്നെ ഉണ്ണിത്തണ്ടും പൂള എന്നാൽ കപ്പ പൂളയും കപ്പയും ചേമ്പുംതണ്ടും അതായിരുന്നു ഇങ്ങനെ പടുകൂട്ടാൻ പിന്നെ ഉണ്ണിത്തണ്ട് ഉണ്ണിത്തണ്ട് എന്ന് വാഴേൻ്റെ ഉള്ളിലുള്ളൊരു ഇതാണ് ഉണ്ണിത്തണ്ട് അത് ഉണ്ണിപ്പിണ്ടിയെന്നും പറയും അത് മുതിര വറുത്തിട്ട് ആണ് വയ്ക്കുക ഉണ്ണിത്തണ്ടും മുതിരയും കൂടെ അങ്ങനെ പിന്നെ അവിയൽ അവിയൽ അവിയൽ അവിയലും ഉണ്ടാക്കാം അതിൽ മുരിങ്ങക്കായ മുരിങ്ങക്കായും മുരിങ്ങക്കായ പയർ കേരറ്റ് ചേന കായ കേരറ്റ് എല്ലാംകൂടി ചേർന്നതാണ് അവിയൽ തൈരും തൈരും ഒഴിക്കും നാളികേരം പച്ചമുളകുമെല്ലാം ചതച്ചിട്ട് അങ്ങനെയാണ് അവിയൽ പിന്നെ മത്തനെലിശ്ശേരി മത്തനും മത്തനും പയറും അങ്ങനെയൊരു എലിശ്ശേരി പിന്നെ ഇഞ്ചിത്തൈര് പിന്നെ നാളികേരം ഇഞ്ചിയും പച്ചമുളകും തൈരും നാളികേര നാളികേരവും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടതാണ് ഇഞ്ചിത്തൈര് അത് കടുകിട്ട് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് വറവിടുക അങ്ങനെയാണ് ഇഞ്ചിത്തൈര് ഉണ്ടാക്കണത് പിന്നെ പിന്നെ പിന്നെ പരിപ്പും മുരിങ്ങാക്കായും അങ്ങനൊരു കറി പിന്നെ പരിപ്പും കായകൊണ്ടും കറി വയ്ക്കാം പരിപ്പും കായകൊണ്ടും കറി വയ്ക്കാം

പിന്നെന്താണ് പിന്നെ ഇലക്കറികളുണ്ടാക്കാം മുരിങ്ങയും മുരിങ്ങയും മുരിങ്ങയിലയും നാളികേരം പച്ചമുളകും ചതച്ചിട്ടിട്ട് അങ്ങനെ മുരിങ്ങക്കറി അതേപടി പിന്നെ ഇത് ചീരയും ചീരകൊണ്ട് ചീരത്തണ്ടും എല്ലാം കൂടി അരിഞ്ഞിട്ട് ആണ് ചീരകൊണ്ട് ഒരു തോരൻ അങ്ങനെ ഇലക്കറികൾ പിന്നെ കപ്പയും മുളി മുതിരയും കൂടി വയ്ക്കാം അങ്ങനേയും വയ്ക്കാം പിന്നെ പടുകൂട്ടാൻ അങ്ങനെ ഉണ്ടാക്കാം പിന്നെയെന്താ വയ്ക്കുക രസം രസത്തിന് വെളുത്തുള്ളി വെളുത്തുള്ളി ജീരകം കുരുമുളക് കായം മഞ്ഞൾപ്പൊടി ഉപ്പ് പുളി തക്കാളി ഇതെല്ലാം കൂട്ടിയിട്ടാണ് രസം ഉണ്ടാക്കൽ പിന്നെ മാമ്പഴം മാമ്പഴപ്പുളിശ്ശേരി അത് പിന്നെ മാമ്പഴം നല്ല പഴുത്ത നാടൻ മാമ്പഴം നല്ല ഉടച്ച് ചട്ടിയിൽ ചട്ടിയിലാണ് വയ്ക്കേണ്ടത് ചട്ടിയിൽ നല്ല കുഴച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി മുളകുപൊടിയും ചേർത്ത് അടുപ്പത്ത് വയ്ക്കുക പിന്നെ പിന്നെ നാളികേരമരച്ച് തൈരും ഒഴിച്ച് വേണമെങ്കിൽ മധുരത്തിന് കുറച്ചൊരു ശർക്കരയും ഇടാം അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴപ്പുളിശ്ശേരി പിന്നെയെന്താ പിന്നെ പുളിയിഞ്ചി പുളിയിഞ്ചി പിന്നെ പുളി നല്ലോണം പുളിയെടുത്ത് പിഴിഞ്ഞ് അത് ചാറ് തിളപ്പിച്ചിട്ട് ശർക്കര ഇട്ട് ശർക്കരയും ഇഞ്ചിയും പച്ചമുളകും വഴറ്റിയിട്ട് അതിലിടുക പിന്നെ വറവ് വറവ് സാധനങ്ങൾ കടുകും ഉണക്കമുളകും പിന്നെ ഉണക്കമുളകും ഇട്ട് വറുത്തിടുക അങ്ങനെ പുളിയിഞ്ചി ആയി പിന്നെ അച്ചാർ മാങ്ങ മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് പിന്നെ കായവും മുളകുപൊടി ഉപ്പും എല്ലാ ഇട്ടിട്ട് അങ്ങനെ അച്ചാർ മാങ്ങയച്ചാർ ഉണ്ടാക്കുക പിന്നെയെന്താ വിഭവം ഇതെല്ലാം അങ്ങനെ ചെയ്യാമെന്നാണ് തീരുമാനിച്ചത് പിന്നെ പായസം പായസം ചെറുപയറായാൽ ചെറുപയർ പായസം നാളികേരപ്പാൽ പിഴിഞ്ഞ് ശർക്കരയും ഒക്കെ ഇട്ടിട്ട് ഉള്ള പായസം അങ്ങനെ ചെറുപയർ പായസമൊന്ന്

പിന്നെ മാണിത്തട്ടയെന്ന് പറയും മാണിത്തട്ട അതുണ്ട് അതുകൊണ്ട് വയ്ക്കാം തോരൻ വയ്ക്കാം അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് പച്ചമുളകും നാളികേരവുമിട്ട് വറവിലേക്ക് കടുകും ഉണക്കമുളകും വറുത്തിട്ട് അതിലേക്കിത് അതിലേക്ക് ഇട്ടിട്ട് നാളികേരം ചതച്ചിട്ടതും ചേർത്താൽ അങ്ങനെ മാണിത്തട്ടുകൊണ്ടൊരു തോരനും വയ്ക്കാം പിന്നെയെന്താ

പിന്നെ എന്ന് പിന്നെയെന്താ

പിന്നെ താളിപ്പുകൾ ഉണ്ടാക്കാം മത്തൻ്റെ ഇല വച്ച് താളിക്കാം മത്തൻ്റെ ഇല പിന്നെ പച്ചമുളകും പച്ചമുളകും ചെറിയ ഉള്ളിയും അരിഞ്ഞ് വഴറ്റി അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു മത്തൻ്റെ ഇല താളിക്കാം മത്തൻ്റെ ഇലയിട്ട് അങ്ങനെ വേവിച്ച് അങ്ങനെയൊരു താളിപ്പ് ഉണ്ടാക്കാം

പരിപ്പും പരിപ്പും നെയ്യും കൂട്ടിയുള്ള ഒരു വിഭവം അങ്ങനെ പിന്നൊരു പപ്പടം വേണമെങ്കിൽ ഒരു പഴം ഇതെല്ലാം പിന്നെ ശർക്കര ഉപ്പേരി വറുത്ത ഉപ്പേരി ഇതെല്ലാം പിന്നെ തൈര് ഇഞ്ചിയും പച്ചമുളകും ഉള്ള ഒരു ഒരു ഇത് കറി ഇതൊക്കെ ആണ് ഞങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തത്